എൻ്റെ സുഹൃത്തുക്കളെപ്പറ്റിയാണ് ഞാൻ ആദ്യം പറയാൻ പോവുന്നത് എനിക്ക് രണ്ടു തരത്തിലുള്ള സുഹൃത്തുക്കളാണ് ഉള്ളത് ഒന്ന് ഇവിടെ എൻ്റെ നാട്ടിൽ ഉള്ളവരും ഒന്ന് എൻ്റെ കൂടെ പഠിക്കുന്നവരും നാട്ടിലുള്ളവരുടെ ഞാൻ ചെറുപ്പം തൊട്ടേ കാണാൻ തുടങ്ങുന്നതാണ് അതുകൊണ്ട് ഒരു പ്രത്യേക അറ്റാച്ച്മെൻ്റാണ് അവരോട് കൂടുതലുണ്ടാവും പിന്നെ അവിടെയുള്ള സുഹൃത്തുക്കളുടെ കാര്യം ഞാൻ പഠിക്കുന്നത് മൈസൂരാണ് അവിടുത്തെ ഹോസ്റ്റലിലെ സുഹൃത്തുക്കളെപ്പറ്റി പറയാൻ ആണെങ്കിൽ അവരെ ഞാൻ ഈ അടുത്താണ് കാണാൻ തുടങ്ങിയത് അപ്പോൾ കുറച്ച് ഒരു അറ്റാച്ച്മെൻ്റ് കുറവുണ്ടാവും എന്നാലും ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് അവിടെ ഹോസ്റ്റലിൽ ജീവിച്ചു പോവുന്നത് പിന്നെ എനിക്കെൻ്റെ കുടുംബക്കാരെപ്പറ്റി പറയാനുള്ളത് എനിക്ക് എൻ്റെ അച്ഛൻ്റെ കുടുംബക്കാരും അമ്മയുടെ കുടുംബക്കാരും ആണ് ഉള്ളത് ഈ ആളും രണ്ട് ആൾക്കാരും എനിക്ക് ഒരേപോലെയാണ് കുടുംബക്കാർ കുടുംബക്കാരിൽ തന്നെ നല്ലതും ചീത്ത ആൾക്കാരും ഉണ്ടാവും പരദൂഷണം പറയുന്നവരും എല്ലാവരും തന്നെ ഉള്ളൊരു നല്ല കുടുംബമാണ് എൻ്റേത് അതിൽ അച്ഛൻ്റെ കുടുംബക്കാരോടാണ് എനിക്ക് കുറച്ചുകൂടി ഒരു അറ്റാച്ച്മെൻ്റ് കൂടുതലുള്ളത് കാരണം എന്താണെന്ന് വച്ചാൽ ഞാൻ ജീവിച്ചതും വളർന്നതും ഒക്കെ അച്ഛൻ്റെ വീട്ടിലാണ് അതിനാൽ തന്നെ എനിക്ക് ഇവിടെ ഉള്ളവരാണ് കുറച്ചുകൂടി എന്താ കംഫേർട്ട് ആയിട്ടുള്ളത് പിന്നെ എല്ലാവരുടെയും കാര്യം പറയുമ്പോൾ ഈ സുഹൃത്തുക്കളും ഏറ്റവും കൂടുതൽ അറ്റാച്ച് എൻ്റെ വീട്ടുകാരോടാണ് കാരണം മൈസൂരുള്ള സുഹ്രുത്തുക്കൾക്കാർക്കും എൻ്റെ വീട്ടുകാരെയോ കുടുംബക്കാരെയോ അറിയത്തില്ല ഇവിടെയുള്ള സുഹൃത്തുക്കൾക്ക് എൻ്റെ വീട്ടുകാരെയും എല്ലാവരെയും തന്നെ അറിയാവുന്നതാണ് അതുകൊണ്ടൊക്കെത്തന്നെ എനിക്ക് ഇവിടെയുള്ളവരാണ് കുറച്ചുകൂടി കംഫേർട്ട് ആയി തോന്നുന്നത് എൻ്റെ കംഫേർട്ട് സോൺ ഇവിടെയുള്ള സുഹൃത്തുക്കളാണ്